സോഷ്യൽ മീഡിയയിൽ ഇലിടാൻ ഞാൻ വളരെ ഒത്തിരി ഡാൻസുകൾ ഒത്തിരി നൃത്തങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് വളരെ വളരെ വളരെ മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ് കാരണം നമ്മൾ പലതരം സ്ട്രെസ്സ് നമ്മക്ക് പലതരം സ്ട്രെസ്സ് ആണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽനിന്നും ഒരു ഒരു വിടുതൽ കിട്ടാനായാണ് നമ്മൾ സോഷ്യൽ മീഡിയായിൽ നൃത്തങ്ങളും ഒക്കെ ഇടുന്നത് അപ്പോൾ നമുക്ക് അതിലൂടെ മറ്റുള്ളവർ നമ്മളെ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് അതിലൂടെ നമുക്ക് മാനസികമായി ഒരു സന്തോഷം കിട്ടുന്നു അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് അതിനോടുള്ള ഇഷ്ടം കൂടുന്നു ഇത് വളരെ അധികം മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഇതാ ഒരു പ്രവർത്തിയാണ്